എൻ്റെ മകൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ അടിമ പണി എടുക്കുക അങ്ങനത്തെ കൺസെപ്റ്റിനോട് എനിക്ക് താത്പര്യമില്ല കാരണം അവർക്ക് അവരുടേതായ ജീവിതം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മെയിനാണ് അവർക്ക് അവരുടെ ജീവിതം അവരുടെ ജോലി അവർക്കൊരു വരുമാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെയും കൂടി കാര്യമല്ല അവർക്കുണ്ടാകുന്ന ഭാവി തലർ തലമുറയും കൂടി അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും അപ്പോൾ സ്ത് എന്താ പറയുക കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക ഇപ്പോൾ പത്ത് വരെ കഴിഞ്ഞവരെ എന്തായാലും എന്നാൽ പിന്നെ പത്ത് വരെ വിടേണ്ട ആവശ്യം ഇല്ല പത്ത് വരെ കഴിഞ്ഞവരെ വരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്ന പാരൻറ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ പഠിപ്പിക്കാനേ പാടില്ല അവരെ എന്തിനാ വെറുതെ പഠിപ്പിച്ച് ഇത്രയും കാലം നമ്മുടെ സമൂഹത്തിൽ നടത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെന്തെങ്കിലും അവരെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായൊരു ഗുണം കിട്ടണമല്ലോ ഇപ്പോൾ നമ്മളെന്തിനാ പഠിക്കുന്നത് ഓരോ അറിവും കിട്ടി നമുക്കൊരു ജോലി സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ പഠിപ്പിച്ച് നല്ല രീതിയിലൊരു ജോലിയും കാര്യങ്ങളൊക്കെ നേടികൊടുത്തതിനു ശേഷം അവർക്കൊരു താത്പര്യം വന്നതിനുശേഷം മാത്രമേ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളു അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് എൻ്റെയൊരു കാര്യമെന്ന് വേണമെങ്കിൽ പറയാം